എനിക്ക് ഏറ്റവും കൂടുതൽ വരയ്ക്കാൻ ഇഷ്ടമുള്ള ചിത്രങ്ങൾ ഗ്രാമങ്ങളുടെയാണ് അതായതൊരു നാച്ചുറാലിറ്റി ഒരുപാട് പച്ചപ്പുകൾ പാടങ്ങൾ പുഴകൾ എന്നിവയൊക്കെ ഉള്ള സ്ഥലങ്ങളെ വരയ്ക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതായത് ഇപ്പോ നമ്മൾ ഒരു ഗ്രാമത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വയലുകൾ ഇണ്ടാകും ആ വയലുകളുടെ ചിത്രം അതുപോലെത്തന്നെ വയലുകൾ ജോലി ചെയ്യുന്ന കൃഷിക്കാരുടെ ചിത്രം ഉഴുതുമറിക്കുന്ന കാളകളുടെ ചിത്രം ഒരു ഒരു ഗ്രാമത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ ഒരു ഒരുപാട് കുട്ടികൾ അവരുടെ ബാല്യകാലം ഒരുപാട് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടാവും മരച്ചുവടുകളിൽ അതായത് മരത്തിന്റെ തണലിലൊക്കെ ഇരുന്ന് ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ടാവും അതൊക്കെ വരക്കാനാണ് എനിക്കിഷ്ടം ഒരുപാട് ഗ്രാമങ്ങളിൽ ഉള്ള ചിത്രങ്ങൾ മഴ അതുപോലെത്തന്നെ തോട് പുഴ വയലുകൾ ഏറ്റവും കൂടുതൽ എനിക്ക് വയലുകളെയൊക്കെയാണ് ഒരുപാട് ഇഷ്ടം ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളാണ് ഒരുപാട് പട്ടണങ്ങൾ വരയ്ക്കുന്നതിനേക്കാട്ടിയും എനിക്കിഷ്ടം ഗ്രാമങ്ങളിലുള്ള ജനങ്ങളെ വരയ്ക്കാനും അവിടെയുള്ള കട ചെറിയ ചെറിയ കടകൾ അവിടെയുള്ള ജനങ്ങൾ ജീവിക്കുന്ന രീതികൾ അതുപോലെത്തന്നെ കൃഷി ചെയ്യുന്നത് കർഷകരെ അതുപോലെത്തന്നെ ഉഴുന്നുമറിക്കുന്ന മൃഗങ്ങളെ കുട്ടികളെ ഗ്രാമത്തിലുള്ള കുട്ടികൾ കളിക്കുന്ന കളികൾ ഇതൊക്കെയാണ് എനിക്ക് കൂടുതൽ വരയ്ക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്